ഞാനൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി എന്ന നിലയില് ഞങ്ങൾക്ക് എല്ലാം പ്രാർത്ഥനാചടങ്ങുകളോടു കൂടിയാണ് എല്ലാം തന്നെ ആരംഭിക്കുന്നത് ഇപ്പോള് ഉദാഹരണം എൻ്റെ വിവാഹം നടന്നത് തന്നെ തലേ ദിവസം ഞങ്ങള് മധുരം കിള്ള് എന്നൊരു ചടങ്ങുണ്ട് ആ അതിന് വരൻ്റെ വീട്ടിലായാലും വധുവിൻ്റെ വീട്ടിലായാലും അച്ചൻ വന്നു പ്രാർത്ഥിച്ച് ആശീർവദിച്ചിട്ടാണ് ആ ചടങ്ങ് നടത്താറുള്ളത് അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്നവരെല്ലാം വന്ന് പ്രാർത്ഥനയോടുകൂടി മധുരം തന്ന് അങ്ങനെയാണ് ആ ചടങ്ങിലോട്ട് പ്രവാശി പ്രവേശിക്കുന്നത് പിറ്റേ ദിവസമെന്ന് പറയുന്നത് വിവാഹമെന്ന മംഗളകരമായ കാര്യം അതില് പള്ളിയിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത് അതില് പ്രാർത്ഥനയോടു കൂടിത്തന്നെ മിന്നുകെട്ട് പിന്നെ പരസ്പരം മോതിരം അണിയിക്കല് മന്ത്രകോടി ചാർത്തല് പിന്നെ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ ചൊല്ലല് ഇതെല്ലാം തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നാണ് നടത്തുന്നത് പിന്നേ വധുവിനെ വരൻ്റെ വീട്ടിലോട്ട് പ്രവേശിപ്പിക്കുന്നതുപോലും പ്രാർത്ഥനയോടുകൂടി നിലവിളക്ക് തന്ന് പ്രാർത്ഥിച്ചാണ് അകത്തേക്ക് കയറ്റുന്നത് പിന്നെ എല്ലാം അന്ന് എല്ലാം സന്ധ്യാപ്രാർത്ഥനകള് നടത്തുകയും ഇതും എല്ലാം നടത്തിയിട്ടാണ് ചെയ്യുന്നത് ഹിന്ദുക്കൾക്കെന്നു പറഞ്ഞാൽ അവർക്കും ഇതേപര ഇതേപോലുള്ള എല്ലാ ആചാരങ്ങളും അവർക്കൂണ്ട് നിലവിളക്ക് കൊടുക്കല് ആശീർവാദം അവരുടെ പൂജാരി വന്നിട്ട് അത് എല്ലാം ആശീർവദിച്ചും അനുഗ്രഹിച്ചിട്ടുമാണ് അവരുടെ വിവാഹം നടക്കുന്നത് മുസ്ലീങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല ഞാന് മുസ്ലീങ്ങളുടെ ഒരു കല്യാണത്തിലും ഞാൻ കണ്ടിട്ടുമില്ലാ ഒന്നുമില്ലാ അങ്ങനെ